എനിക്ക് ഇപ്പം സർഫ് ചെയ്യാനുള്ള ആഗ്രഹമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മെയ്നായിട്ട് ഇപ്പം തിരമാലകളിലൂടെയാണ് സർഫിങ് നടക്കുവൊള്ളു പല രീതിയിലുള്ള സർഫിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം അതായത് നമുക്കിപ്പം അതിനകത്ത് കയറി നിന്നിട്ട് ഒരാൾക്കായിട്ടുള്ള പോകുന്ന സർഫും കാര്യങ്ങളക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് മെയ്നായിട്ട് ബീച്ചുകളിലാണ് കൂടുതലും നടക്കുന്നത് ഇപ്പ കോഴിക്കോട് നമുക്ക് ഇവിടെ തന്നെ കോഴിക്കോട് ബീച്ചില് അങ്ങനത്തേക്കെ സൗകര്യങ്ങളും കാര്യങ്ങളണ്ട് ബോട്ടിങ് നടത്താൻ വേണ്ടി സാധിക്കുന്നയാണ് അപ്പോൾ അതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നാലാൾക്കാര് വച്ചിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരാൾക്ക് അതായത് നാല് പേർക്കും കൂടി അറുനൂറ് എഴുനൂറ് രൂപ എങ്ങാണ്ടാണ് ഫീസും കാര്യങ്ങളക്കെ വരിക ഞാനിതേ വരെ ഒന്ന് രണ്ട് വട്ടം കയറിയിട്ടുണ്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടാണ് ആയിരുന്നു കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് തിരമാലകളിലൂടെയുള്ള ഒരു ഉലച്ചിലും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് പോയിട്ടൊണ്ടായിരുന്നത് നമുക്ക് തന്നെ ഒരു ഒരു ഗൈഡും കാര്യങ്ങളക്കേണ്ടാവും നമുക്ക് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും അങ്ങനെ ഫുള്ള് സേഫ്റ്റി ആയിട്ടാണ് നമ്മളെ കൊണ്ട് പോവുക അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഭൂരിഭാഗം ആൾക്കാരൊന്ന് ശ്രമിച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കൂടെ നല്ലതാണ്